നമ്മൾ കൂടുതലായിട്ടും ബൈക്കിങ് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടാന് വേണ്ടിയിട്ട് മറ്റു ഡ്രൈവര്മാര്ക്ക് നമുക്ക് വാട്ട്സപ്പ് മെസേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന് വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു ബൈക്കിംഗ് യാത്രയ്ക്ക് പോകുമ്പോൾ കൂടുതലായിട്ടും അവരുമായിട്ട് എങ്ങനെയാണ് കമ്യൂണിക്കേഷന് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഇപ്പം നമുക്ക് കൂടുതലായിട്ടും റീ ഹിമാലയന് ക്ലബ് അങ്ങനത്തെ ക്ലബ്ബുകൾ കാര്യങ്ങൾ ഒക്കെയുണ്ട് ഇപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്രൂപ്പ് കാര്യങ്ങൾ ഒക്കെ ഇന്സ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്ട്സാപ്പിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ റൈഡിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മളതിനകത്താണ് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുക അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്ത് ഒരു റൈഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്രക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റിപ്ലയും കാര്യങ്ങൾ ഒക്കെ വരും അപ്പം നമുക്ക് ഒരുമ്മിച്ചു തന്നെ ഒരു ബൈക്കിംഗ് യാത്രയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകാന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഒറ്റക്ക് ബൈക്കോടിക്കുന്നതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം എന്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും പറ്റിയാൽ തന്നെ വേറെ ആരെയും വേറെ ആര്ക്കൊന്നും പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇത് കൊണ്ടു തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഓടിക്കുന്നതാണ് കൂടുതലായിട്ടും താത്പര്യം